മൃഗ വളർത്തലിൽ നമുക്കൊക്കെ കിട്ടുന്ന ഉൽപ്പന്നം എന്നു പറയുന്നത് മാംസം മുട്ട പാൽ എന്നിവ ഒഴിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പട്ടിയെ വളർത്തുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നം എന്നു പറയുന്നത് ആ ഒരു പട്ടി കുഞ്ഞെന്നുതന്നെ പറയാം നമ്മൾ പിന്നെ അതിനെ നന്നായി നോക്കി വലുതാക്കി വളർത്തി കൊഞ്ചിച്ച് അതിന് നമ്മളോടൊരു സ്നേഹമുണ്ടാവും നമ്മളെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും അത് മനസ്സിലാക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാലാട്ടി വരാനൊരു പട്ടിയെങ്കിലുമുണ്ടാവും എന്നു നമ്മൾ പറയില്ലേ അങ്ങനെയൊരു പട്ടിയെങ്കിലും ഉണ്ടാവും അതാണൊരു ഉൽപ്പന്നമായിട്ട് നമുക്ക് കിട്ടുക ഈ പറഞ്ഞ മാംസം മുട്ട പാൽ കമ്പിളി എന്നിവ ഒഴിച്ചാൽ പിന്നെ ഇപ്പം പശുവിൻ്റെ ആണെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക പാൽ കിട്ടും എന്നു പറയും പക്ഷെ അതുപോലെതന്നെ അവിടെ എന്താ ഒരു ഉൽപ്പന്നമായിട്ട് കിട്ടുന്നത് അടുത്ത തലമുറയ്ക്കുള്ളൊരു പശുക്കുട്ടിയേയും അല്ലെങ്കിലൊരു മൂരിക്കുട്ടനായിരിക്കും ഇതുണ്ടെങ്കിൽ ഗുണമെന്താണെന്നു വെച്ചാലിപ്പോഴൊരു മൂരിക്കുട്ടനുണ്ടെങ്കിൽ നമുക്കതിനെ നല്ല പൈസയ്ക്ക് വിൽക്കാൻ പറ്റും

മൃഗ വളർത്തലൊക്കെ നല്ലതുതന്നെയാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കിട്ടും ഓരോ മൃഗത്തിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ കോഴിയാണെങ്കിലും കോഴിയിനെ സംബന്ധിച്ചെടുത്തോളം കോഴി നമുക്ക് മുട്ട മാത്രമല്ല പിന്നീടത് കുഞ്ഞുങ്ങളേയും വിരിയിക്കുകയല്ലേ ചെയ്യുന്നത് പുതിയ തലമുറയ്ക്കോരോ മൃഗങ്ങളും ജന്മം കൊടുക്കുക നമ്മൾ മനുഷ്യരെപ്പോലെ